അതേ ആരാണ് വിളിക്കുന്നത്

ആ താങ്ക് യൂ ആ താങ്ക് യൂ താങ്ക് യൂ

അതെയോ ആ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ഷീജ അല്ലേ ഷീജയെന്നെങ്ങാണ്ടല്ലേ പേര് ആ പറഞ്ഞു ആ പറഞ്ഞിരുന്നു കേട്ടോ ആ ആ

ഞങ്ങൾ ആ പുറത്ത് പുറമേയുള്ള സ്റ്റൈലിലാണ് ഞങ്ങൽ തയ്ക്കാറ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമല്ലോ എന്നുള്ള രീതിയിൽ വെക്കുന്നതാണ് ഞങ്ങൾ കേട്ടോ അമേരിക്ക അങ്ങനെ പുറം രാജ്യക്കാരെയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ അവർക്കുകൂടി ഇഷ്ടപ്പെടട്ടേ എന്നോർത്ത് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്ക നമ്മൾ കെമിക്കലില്ലാത്തതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ടേസ്റ്റ് വരുന്നത് ലവന ആ ആ ഒത്തിരി പേര് ഞങ്ങളുടെ കടയിലൊക്ക വരാറ് ഞങ്ങളുടെ റെസ്റ്റോറൻ്റിൽ വരാറുണ്ടെല്ലാവരും കുറേ പേര് തന്നെ വരുന്നുണ്ടല്ലോ ഫുഡ് നല്ലതാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ആ ഏറ്റവും കൂടുതൽ ദൈവത്തിനാണ് നന്ദി പറയുന്നത് കാരണം എല്ലാവരും കൈകളിലൂടെ തന്നെ നടക്കണമെന്നില്ലല്ലോ എല്ലാമേ നമ്മുടെ സ്വന്തമായിട്ടല്ല ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നും പറയണം അതുകൊണ്ട് ആ കുഴപ്പമില്ലാതെ പോവുന്നു

അതെ അതെ ആ ഇന്ന് വിളിക്കാൻ തോന്നിയല്ലോ അങ്ങനെയൊക്കെ വിളിച്ചത് തന്നെ ഒരു ഭയങ്കര കാര്യമായിട്ട് തോന്നി മിക്കവരും അങ്ങനെ പറയാറുണ്ടെങ്കിലും ഇത്രയും ഞങ്ങളുടെ ഫുഡ് ഇത്രയും ഇതായിട്ട് പറയുന്ന വ്യക്തി നിങ്ങൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്

ആ ഇനിയും വാ ഷീജ ഇനിയും വാ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടാം കേട്ടോ മാഡം ഒത്തിരി സഹായങ്ങളെന്താണെങ്കിലും നമ്മളൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ബിരിയാണിയെ കുറിച്ചൊത്തിരി പേര് പറയാറുണ്ട് കേട്ടോ ബിരിയാണിയെക്കുറിച്ച്

ആ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ആ എവിടെയുള്ള വീട് എവിടെയാണ് സ്ഥലം എവിടെയാണ് നിങ്ങളുടെ ആലപ്പുഴയിലല്ലേ ആ ശരി ശരി ആ ആലപ്പുഴക്കാരൊക്കെ ഒത്തിരി വരാറുണ്ട് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ അതെ അതെ ഞങ്ങൾക്കും നന്ദിയുണ്ട് കാരണം വന്നു കഴിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആ ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുകയെന്നുള്ളത് തന്നെയൊരു വലിയ വിലയാണല്ലോ ഇന്നത്തെ കാലത്ത് ഫുഡിനെ സംബന്ധിച്ചെടുത്തോളമേ ഫുഡ് പോയ്സൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് കാലമാണല്ലോ ഇപ്പോഴത്തെ കാലം ഇത് നല്ലത് പറയുകയെന്നുള്ളത് ഞങ്ങൾക്കേറ്റവും നല്ല പ്രോത്സാഹനം തന്നെയാണ്

ആ ഓക്കെ ഓക്കെ ഓക്കെ സീ യു